സാധാരണയായി ഒരു നവജാത ശിശു ജന്മം എടുക്കുമ്പോൾ കുഞ്ഞിനെ കാണാനും മറ്റുമായി ധാരാളം ആളുകൾ നമ്മളുടെ വീട്ടിലേക്കും ആശുപത്രികളിലേക്കും ഒക്കെ വരിക സാധാരണമാണ് പക്ഷെ അത്തരം അവസരങ്ങളിൽ നമ്മൾക്ക് ഉണ്ടാകുന്ന അസുഖങ്ങളും എന്തെങ്കിലും ഇൻഫെക്ഷനുകളും കുട്ടികളിലേക്ക് പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആയതിനാൽ നവജാത ശിശുക്കളെ കാണാനുള്ള യാത്ര കഴിവതും നമ്മൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ചെറിയ കുട്ടികൾക്ക് പ്രതിരോധ ശക്തി വളരെ കുറവായതിനാൽ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന സാഹചര്യം മുതൽ നമ്മൾ അവരെ വളരെ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യേണ്ടതാണ് മാത്രമല്ല ചെറിയൊരു കുഞ്ഞ് വളർന്ന് വരാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടതുമാണ് ആയതിനാൽ ചെറിയ കുഞ്ഞുങ്ങൾക്ക് വളർന്നു വരാനുള്ള ഒരു സാഹചര്യവും അവരെ മറ്റ് അണുബാധകളിൽ നിന്നും എല്ലാം സംരക്ഷിക്കുന്നതിനുമായി നമ്മൾ കഴിവതും സന്ദർശനങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും പിന്നെ കുട്ടികൾക്ക് കുഞ്ഞുങ്ങളെ നമ്മൾ എടുക്കുകയും മറ്റും ചെയ്യുമ്പോൾ വൃത്തിഹീനമായ കൈകൾ കൊണ്ടോ അണുവിമുക്തമാക്കാത്ത വസ്തുക്കൾ ഉപയോഗിച്ചോ അവരെ തൊടാനോ അല്ലെങ്കിൽ അവരെ എടുക്കാനോ പാടുള്ളതല്ല

നമ്മൾ ചെറിയ കുഞ്ഞുങ്ങൾക്ക് അവരെ എന്തെങ്കിലും ഡ്രോപ്സ് അങ്ങനെ എന്തെങ്കിലും കുട്ടികൾക്ക് കൊടുക്കുന്നതും നല്ലതായ ഒരു കാര്യമായി തോന്നുന്നില്ല നവജാത ശിശു പരിചരണം നമ്മൾ വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ടുന്ന കാര്യമാണ് പിന്നെ മറ്റൊന്ന് പറയുകയാണെങ്കിൽ എൻ്റെ പരിചയത്തിലുള്ള ഒരു സുഹൃത്തിൻ്റെ ഭാര്യ പ്രസവിക്കുകയും അതിനെത്തുടർന്ന് കുറെയേറെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുകയും ചെയ്തു സകീർണ്ണതകൾ ഉണ്ടാകുകയും ചെയ്തു കാരണം മറ്റൊന്നുമായിരുന്നില്ല കുഞ്ഞിനെ കാണാനായി ഒരുപാട് പേർ ആ ഹോസ്പിറ്റലിൽ ആശുപത്രികളിൽ ചെല്ലുകയും ആശുപത്രിയിൽ ചെല്ലുകയും കുഞ്ഞിനെ എടുക്കുകയും മറ്റും ചെയ്തതിനാൽ കുഞ്ഞിന് വളരെ പെട്ടന്ന് ഇൻഫെക്ഷൻ വരികയും പിന്നീട് ആ മറ്റു കുഞ്ഞുങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് മാറ്റേണ്ടുന്ന സാഹചര്യം വരെ ഉണ്ടായി അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാകുന്നതല്ലേ നല്ലത് കുട്ടികളുടെ കുട്ടികൾക്കായി ഉപയോഗിക്കുന്ന വസ്തുക്കൾ അത് അവരുടെ ചെറിയ ഡ്രസ്സായാലും തുണി തരങ്ങളായാലും അവർ ഉപയോഗിക്കുന്ന മറ്റ് എന്തു വസ്തുക്കൾ ആയാലും എപ്പോഴും കഴുകി വൃത്തിയായി അവർ കിടക്കുന്ന മുറിയും മറ്റും വളരെ ശുചിയായി സൂക്ഷിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ഒരു കാരണവശാലും നമ്മൾ അണുവിമുക്തമാക്കാത്ത കൈകൾ കൊണ്ട് അവരെ എടുക്കാൻ പാടുള്ളതല്ല പിന്നെ കുറേയേറെ ആളുകൾ കൂടുന്നിടത് കുട്ടിയെ കൊണ്ടുപോകുന്നതും നല്ലതായി തോന്നുന്നില്ല അണുവിമുക്തമാകാത്ത വസ്തുക്കൾ ഉപയോഗിച്ചുള്ള പ്രസവം അതുപോലുള്ള കാര്യങ്ങൾ കുട്ടികളിൽ അസുഖങ്ങൾ വരാനും ഇടയാക്കും ആയതിനാൽ നമ്മൾ പ്രസവ ആവിശ്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ വളരെ നല്ല ആശുപത്രികൾ തെരഞ്ഞെടുക്കാനും ശ്രദ്ധിക്കുക